നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈദ്യുതി അതിലേറെ അപകടകാരിയുമാണ് ഈ വൈദ്യുതി മഴക്കാലങ്ങളിൽ മല മരം പോലെയുള്ള പോസ്റ്റുകളിൽ മരം പോലെയുള്ളവ പോസ്റ്റുകളിൽ ഒടിഞ്ഞ് വീഴുമ്പത്തേന് ലൈൻ കമ്പി പൊട്ടിപോയിയും നമ്മളതറിയാതെ പല അപകട അപകടങ്ങളും ഉണ്ടാവാറുണ്ട് പല സ്ഥലങ്ങളിലും കൃഷിയിടങ്ങളില് മൃഗങ്ങളെ ഓടിക്കുവാൻ വേണ്ടി വൈദ്യുതി ലൈനുകൾ സ്ഥാപിക്കുന്ന കമ്പ് വൈദ്യുതി കമ്പികൾ ഉപയോഗിക്കുന്നവരുണ്ട് അതിലൂടെ തന്നെ ഒരുപാട് അപകടങ്ങൾ അപകടങ്ങൾ എന്ന് പറഞ്ഞ മരണം വരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പഴും കണ്ട് കൊണ്ടിരിക്കുന്നവയാണ് നമ്മുടെ ഒര് അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ് ഇവ പരമാവധി മഴ മഴ സമയങ്ങളിൽ മഴ സമയങ്ങളിൽ അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ ക നനഞ്ഞ കൈ കൊണ്ടോ വൈദ്യുതിയെ തൊ സ്പർശിക്കാതിരിക്കുക നാ അതുപോലെ മഴ മഴ സമയങ്ങളിൽ പോസ്റ്റുകൾ ഒടിഞ്ഞ് വീട്ട് വീണിട്ടുണ്ടെങ്കിൽ അന്നേരം ഉടൻ തന്നെ കെ എസ് ഇ ബി യുമായി ബന്ധപ്പെടുകയോ അവരുടെ ഹെൽപ്പിംഗ് ലൈനിൽ വിളിച്ച് പറയുകയോ ചെയ്യുക അതുപോല ഉള്ള വൈദ്യുതി മൂലമുള്ള ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും